ഈ ഒരു ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രസക്തിയില്ല എന്നു തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഞാനൊരു മത്സ്യത്തൊഴിലാളിയോ ചൂണ്ടയിടാൻ പോകുന്ന ആളോ അല്ല പിന്നെ ചെറുപ്പത്തിലൊക്കെ ചെറിയ ചൂണ്ടകളുമായിട്ട് തോട്ടരികിൽ ചൂണ്ടയിട്ട ചെറിയൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതിനകത്ത് വല്ല വെള്ളത്തെയോ പരലിനെയൊക്കെ മാത്രം എനിക്ക് ലഭിച്ചിട്ടുള്ളു എന്നാൽ വല്ലപ്പോഴെങ്കിലും ഒരു മത്സ്യം എൻ്റെ ചൂണ്ടയിൽ കൊത്തുമ്പോൾ ഞാനനുഭവിച്ച ഒരു മാനസിക സന്തോഷം വളരേയേറെയാണ് അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചൂണ്ടയിട്ട് പിടിച്ച ഒന്ന് രണ്ട് ചെറിയ മീനുമായിട്ട് വീട്ടിൽപ്പോയി അതിനെ വെട്ടി വറുത്തുകൂട്ടിയ ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ സന്തോഷം നൽകിയിരുന്നു എന്നുവേണം പറയാൻ